ഞാൻ ഇത് പോസ്റ്റോ പോസ്റ്റ് മേനല്ലേ അ ഞാൻ ഒരു ഫോൺ ഓഡർ ചെയ്തായിരുന്നു അത് അതു ഞാൻ അതു കമ്പ്ലൈൻ്റ് ആയിരുന്നല്ലോ അതു പൊട്ടിപ്പോയല്ലൊ ഞാനത് അവിടെ വിളിച്ചന്വേഷിച്ചപ്പം അവർ പറഞ്ഞല്ലോ നല്ലതു പോലത് പേക്ക് ചെയ്തതാണ് എനിക്കവർ വീഡിയോ സഹിതം ഇട്ടു തന്നതാണ് പക്ഷെ അതു നിങ്ങ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ് പക്ഷേ അതെനിക്ക് മിസ്റ്റേയ്ക്കാണല്ലോ എനിക്കത് പൊട്ടിപ്പോയതാണ് പക്ഷെ നിങ്ങൾ അതു നിങ്ങളുടെ കം നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേയ്ക്കാണല്ലോ അതു കാരണം ഞാനത് അല്ലല്ല എൻ്റെ കയ്യിൽ വന്നതിനു ശേഷമല്ല അതിന് മുൻപാണത് കാരണം ഞാൻ അവരത് വീഡിയോ സഹിതം എന്നെ കാണിച്ചതാണ് നിങ്ങളുടേതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണത് അല്ല അല്ല അല്ല പാക്കിങ്ങിനു ശേഷമല്ല അതിന് അതു കഴിഞ്ഞിട്ടാണ് അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നാണതെനിക്ക് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് കാരണമിങ്ങനെ ഉത്തരവാദിത്വമില്ലാതെയാണോ ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നത് അതു നിങ്ങൾ കാണിച്ചതു തെറ്റല്ലേ അത് അതിപ്പം നിങ്ങളുടെ താങ്കളത് പൊട്ടിച്ചു നോക്കണം ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നോക്കിയെ നോക്കികഴിഞ്ഞപ്പോഴത്തേക്കാണല്ലോ മിസ്റ്റേക്ക് കണ്ടു പിടിച്ചത് അ എന്നാൽ എനിക്ക് എനിക്കതിന് നഷ്ടപരിഹാരം തന്നേ പറ്റുകയുള്ളു അത് നിങ്ങളുത്തരവാദിത്വ പൂർണ്ണമായിട്ട് പക്ഷെ എനിക്കെൻ്റെ സാധനം ഇതായിപ്പോയില്ലെ പിന്നിപ്പം അങ്ങനെ പറഞ്ഞിട്ടു കാര്യമില്ലല്ലോ അല്ല എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതല്ല അതു നിങ്ങളുടെ കയ്യിൽ നിന്നു മാത്രം സംഭവിച്ച കാര്യങ്ങളാണത് അ ഉറപ്പാണ് പറയാൻ അതങ്ങനെ കമ്പ്ലൈ പൊട്ടിപ്പോകില്ല കാരണം അവർ വീഡിയോ സഹിതമെന്നെ കാണിച്ചതാണല്ലൊ അതൊരു കമ്പ്ലൈൻ്റുമില്ലാതാണല്ലൊ അവർ വീഡിയോ ഇത് പേക്ക് ചെയ്തു കാണിച്ചത് ഒന്നുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്നു പറ്റിയതല്ല നിങ്ങളുടെ കയ്യിൽ നിന്നു പറ്റിയ നിങ്ങളുടെ ഉത്തരവാദിത്ത്വക്കുറവു കൊണ്ടു മാത്രം പറ്റിയ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ പറയാനതു കാരണം അതു നഷ്ടപ്പെട്ടു പോയില്ലേ കാരണം ഞാനിത്ര വില മുടക്കി ഓഡർ ചെയ്ത സാധനം നഷ്ടപ്പെടുത്തിക്കളഞ്ഞില്ലേ നിങ്ങൾ അതു ഞാനന്ന് അ ഞാനന്നേരമത് നോക്കിയില്ല പക്ഷെ ഞാനിങ്ങനെ ഓർത്തില്ലല്ലോ നിങ്ങളിതിങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയങ്ങ് ചെയ്യുമെന്ന് ഞാനോർത്തില്ല അതു കൊണ്ടാണ് എനിക്കങ്ങനെ പറ്റിപ്പോയത് വിശ്വസിക്കണം വിശ്വസിക്കണം കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നു വന്ന തെറ്റല്ലേ ഇത് അങ്ങനെ പറയാമോയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്കത്രയും വില എത്ര വിലയുള്ള സാധനമാണ് നിങ്ങളത് നഷ്ടപ്പെടുത്തിക്കളയുകയാണ് കാരണം ഞാനത് ഒത്തിരി ആഗ്രഹിച്ചു മേടിച്ച സാധനമാണ് അതല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് നിങ്ങളുടെ ഉത്തരവാദിത്വക്കുറവു കൊണ്ടു മാത്രം അ എന്നാൽ വരണം വന്നു നോക്കണം വന്നു നോക്കി എനിക്കതിനുള്ള ഇതു തരണം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ